ഹലോ ഒടാഫോണിൻ്റെ കസ്റ്റമർ കെയർ അല്ലേ ഞാൻ എൻ്റെ ഫോണ് ഒന്ന് റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എനിക്ക് നെറ്റ് ചെയ്യാനായിട്ട് മൂന്ന് മാസത്തെ നെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ചെയ്ത് പക്ഷെ അത് തെറ്റായ രീതിയിലാണ് ഞാൻ ചെയ്തത് നെറ്റില്ലാതെ കോള് വിളിക്കുന്നതിന് മാത്രമായിട്ടുള്ള ഒരു ഇതിലാണ് ഞനിപ്പം ചെയ്തത് അറിയാതെ ഇങ്ങനെ ചെയ്ത് പോയതാണ് അപ്പം അതൊന്നു മാറ്റി എനിക്ക് അല്ലാതെ ന്നൻ റീച്ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഇത് റദ്ദാക്കിയേച്ചിട്ട് എനിക്ക് നെറ്റോട് കൂടിയുള്ള റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് തെരഞ്ഞെടുക്കാൻ അത് ചെയ്യാൻ വേണ്ടി എനിക്ക് ഇത് ഞാനത് നൂറുരൂപയുടെയാണ് ചെയ്തത് പക്ഷെ എനിക്കത് ചെയ്ത് എനിക്ക് മൂന്ന് മാസത്തിന് എഴുന്നൂറ്റി പത്തൊമ്പത് രൂപയ്ക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളത് എൻ്റെ ഇപ്പം ഞാൻ ചെയ്തത് റദ്ദ് ചെയ്തിട്ട് അടുത്തത് റീച്ചാറ് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി തരുമെന്ന് തരാൻ സാധിക്കുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം നിങ്ങളെ വിളിക്കുന്നത്